ഹലോ ഇത് ഓട്ടോ ഡ്രൈവർ രാജീവനല്ലേ ആഹ് ഒരു ആറ് മണി ആ സമയാകുമ്പോൾ അതായത് ആറാം മൈലിൽ ഫസ്റ്റ് വളവിലുള്ള വീട്ടിൻ്റെ മുൻപിലായിട്ട് ഒന്നെത്തണം പരശ്ശിനി മടപ്പുര വരെ ഒന്ന് പോകണം കണ്ണൂർ പരശ്ശിനി മടപ്പുര വരെ ആഹ് ഏകദേശം നാല് പേരുണ്ടാകും നിങ്ങളുടെ ഓട്ടോയിൽ നാല് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇല്ലേ ആഹ് ഓക്കെ എൻ്റെ വീട് വരുന്നത് ആറാം മൈലിൽ ഇരുട്ടി റോഡിൽ നിന്ന് കുറച്ചു മുന്നോട്ടേക്ക് വരുമ്പോൾ ഫസ്റ്റ് വളവിനുള്ള വീടാന്ന് ആഹ് ആ നാളെയൊരു ഒരു പത്ത് ഒരു ആറു മണിക്കങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തുമണിക്ക് ദർശനവും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചോറ് ഉച്ചയ്ക്ക് ചോറും തിന്നിട്ട് തിരിച്ച് വരാൻ പറ്റുമോ എന്ന് ആഹ് നിങ്ങൾ സ്കൂൾ വണ്ടി ഒന്നും കൊണ്ടു പോകുന്നില്ലല്ലോ സ്കൂൾ കുട്ടികളെയൊന്നും കൊണ്ടു പോകുന്നില്ലല്ലോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൊക്കെ തിരിച്ച് ചെന്നാൽ മതിയല്ലോ ആഹ് വെയിറ്റിങ് ചാർജും കൂടിം കൂട്ടിയിട്ടുള്ള പൈസ പറഞ്ഞാൽ മതി ആഹ് ഓക്കെ നാളെ അപ്പം ആറ് മണിക്ക് എത്താൻ പറ്റില്ലേ രാവിലെ ആഹ് പറശ്ശിനി മടപ്പുര വരെ പോവാ എത്ര കിലോ മീറ്ററുണ്ടാകും അൻപത്തിമൂന്ന് കിലോ മീറ്റർ ഉണ്ടാകും ഓക്കെ ശരിയെന്നാൽ നിങ്ങളാ സമയത്ത് കൃത്യ സമയത്ത് എത്തണേ